കേരളത്തിൽ ലഹരി ഉപയോഗം കൂടുന്നുണ്ടൊ എന്താണ് അഭിപ്രായം കേരളത്തിലെ നമുക്കിപ്പോൾ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റും കൂടുതൽ നമുക്കാണെങ്കിലൊരു പതിനെട്ടിനും നാൽപ്പത്തഞ്ചും ആ ഒരു ഒരു പ്രായ പ്രായത്തിനിടയിലാണേറ്റവും കൂടുതൽ ലഹരി ഉപയോഗിച്ച് ഇപ്പോൾ കാണപ്പെടുന്നത് ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അതിൽത്തന്നെ നമുക്കു കുട്ടികളിൽ ഒരു പന്ത്രണ്ട് വയസ്സു മുതൽ പതിനേഴു വയസ്സുവരെയുള്ള കുട്ടികളിൽ നമ്മൾ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു ജീവിക്കുന്ന ഒരു ജീവിതരീതിയിപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലഹരിയെന്നുപറഞ്ഞു കഴിഞ്ഞാൽത്തന്നെ നമുക്കറിയാം എന്തെങ്കിലൊരു വസ്തുവിനോടൊ അല്ലെങ്കിൽ ഒരു സാധനത്തോടൊ നമുക്ക് അമിതമായിട്ട് തോന്നുന്ന ഒരു ആഗ്രഹം അതുപോലെതന്നെ ഈ അതു കിട്ടാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതു തന്നെ നമ്മളുടെ ഈ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു ലഹരിയിൽ അടിമപ്പെട്ടു പോകുക എന്നുപറയുന്നത് ഇപ്പം നമ്മൾ മുതിർന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുതിർന്നവരിൽത്തന്നെ ഒരു പതിനെട്ടു വയസ്സു തൊട്ട് മുപ്പത്തഞ്ച് വയസ്സു വരെയുള്ള യുവജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുപോകുന്ന ഒരു തര ഒരു ലഹരിയാണ് കഞ്ചാവെന്നു പറയുന്നത് കഞ്ചാവുതന്നെ ഇവർ വലിക്കുന്നതായും അല്ലാണ്ട് മയക്കുമരുന്ന് രൂപേണ ഇവർ കുത്തിവെക്കുന്നതായൊക്കെ നമുക്ക് കാണാറുണ്ട് എം ഡി എം എ പോലെയുള്ളതൊക്കെ നമ്മൾ ഏറ്റും കൂടുതൽ ഇപ്പോൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒട്ടനവധി ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളതും അതുപോലെതന്നെ ഇപ്പം ഏറ്റും നമുക്ക് ഈ കണക്കുകൾ കുത്തനെ ഉയരുന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ലഹരിവിമുക്ത കേന്ദ്രങ്ങളെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നോക്കികഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നു നാലെണ്ണത്തിൽ കൂടുതൽ എങ്ങനെ എങ്ങനെ പോയാലും നമുക്ക് ലഹരിവിമുക്ത കേന്ദ്രങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ കുട്ടികൾക്കു വേണ്ടിയിട്ടുള്ളതു വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന രണ്ടോ മൂന്നോ ഉള്ളെങ്കിലും പിന്നെ കുട്ടികളുടെ എണ്ണും വർ കുട്ടികളുടെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നുണ്ട് കാരണം നമുക്ക് പത്രത്തിൽ ദിവസവും കാണാം പോലീസുകാർ കഞ്ചാവ് കടത്തിയതിനും കഞ്ചാവു വിറ്റതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെ പിടിക്കുന്നതായിട്ട് മുതിർന്നവരുടെ കണക്കെടുത്താലും പലരും ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ഈ മോഷണത്തിന് മോഷണ കേസിലെ പ്രതിയാകുന്നതും അതുപോലെതന്നെ കുല കൊ കൊ കൊലകുറ്റങ്ങൾ ചെയ്യുന്നതും അതുപോലെ പിടിച്ചുപറി അതുപോലെ പീഡനം കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ അടിസ്ഥാനം നോക്കി പോകുകയാണെങ്കിൽ ഈ ലഹരി ഉപയോഗിച്ചിട്ടാണെന്നു കാണാൻ സാധിക്കും ഇപ്പം കഞ്ചാവ് മാത്രം അല്ലാ ഈ സ്റ്റാമ്പ് പോലെയുള്ള ഈ എം ഡി എം എ എൽ എസ് ഡി കൊക്കൈൻ അങ്ങനെ പല പല സാധനങ്ങളുണ്ട് പിന്നെ ചിലരാണെങ്കിൽ പശ അതുപോലെതന്നെ പെയ്ൻറ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താ നെയിൽ പോളിഷിൻ്റെ ആ ഒരുമണം ഗ്യാസിൻ്റെ മണം പെട്രോളിൻ്റെ മണം അങ്ങനെയുള്ള മണങ്ങൾ അതിൽനിന്നും ആസക്തി ഉണ്ടാകുന്ന ആളുമുണ്ട് പിന്നെ ഏറ്റും കൂടുതൽ ഇപ്പോൾ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കോവിഡിനു ശേഷം ഈ ഫോണിൻ്റെ ഉപയോഗം കുത്തനെ അങ്ങു വർദ്ധിച്ച് ഈ പിള്ളേരിൽ കാണുന്ന ആണ് സ്ക്രീൻ അഡിക്ഷൻ എന്നു പറയുന്നത് അതായത് ഫോണിൻ്റെ അമിതമായ ഉപയോഗം അത് ഈ ഫോൺ ഇവരുടെ കയ്യിൽ നിന്ന് മേ അതൊരു ശരിക്കും പറഞ്ഞാൽ ലഹരിയായിട്ടു കണക്കാക്കാൻ പറ്റില്ല പക്ഷേ അതിലൊരു ആസക്തി ഉണ്ടാകുന്നുണ്ട് അതുമൂലം കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്വഭാവവൈകല്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് പല കുട്ടികളെയും നമ്മൾ ഈ പല ലഹരി വിമുക്ത കേന്ദ്ര ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലും കൊണ്ടു പോയി ആക്കുന്നത് ലഹരിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ എല്ലാത്തരത്തിലും തളർത്തികൊണ്ടിരിക്കുകയാണ് അതായത് ശാരീരികമായും മനസികമായിട്ടും ആത്മീയമായിട്ടും നോക്കുകയാണെങ്കിൽ അവർക്കൊരുത്തരത്തിലുള്ള ഒരു ആരോഗ്യ രക്ഷയോ ഒന്നും ഉണ്ടാകുന്നില്ല ശരീരമായി പറയുകയാണെങ്കിൽ ഇപ്പം ക്യാൻസർ അ വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ അറിയാം പല ജില്ലകളിലും കേ പല പലതരത്തിലുള്ള ക്യാൻസറുകൾ മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതെല്ലാം നമ്മൾ പറയും നമ്മുടെ എന്താ ജീവിതശൈലി രോഗങ്ങളായാണ് നമ്മൾ ക്യാൻസറിനെ പോലും ഇപ്പോൾ കണക്കാക്കുന്നത് എന്നുപറഞ്ഞാലും അതിൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണെന്നു വേണം പറയാൻ പുകവലിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് ഈ പുക വലിക്കുന്നവരുടെ അടുത്തിരിക്കുന്നവർക്കു പോലും ഇതിൻ്റെ ആപത്തുണ്ടാകുന്നുണ്ട് അതു പക്ഷേ ആരും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം പുകവലിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയതു കൊണ്ടാണ് ക്യാൻസർ രോഗികളുള്ളത് അതുപോലെതന്നെ ഈ മദ്യപിക്കുന്ന ആൾക്കാർക്ക് ലിവർ സിറോസിസ് അതുപോലെതന്നെ ഹാർട്ട് അറ്റാക്ക് പിന്നെന്താ ദന്ത രോഗങ്ങൾ ബലക്ഷയം അതുപോലെതന്നെ കിതപ്പ് അതൊക്കെ കിതപ്പൊക്കെ വളരെ ചെറിയ മാനസിക രോഗമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഉത്കണ്ഠ ആത്മഹത്യ പ്രവണത ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ പലരെയും കാണാൻ ഈ കഞ്ചാവ് അതായത് കുട്ടികളെത്തന്നെ നമുക്ക് കാണാൻ പറ്റും പലരും അവർക്ക് ഒരു ചെറിയ ടെൻഷൻ വന്നാൽ ഒരു ഉത്കണ്ഠ വന്നാൽ പോലും അവർക്കതിനെ മറികടക്കാനുള്ളൊരു കഴിവില്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാ അവർ അതിൽനിന്ന് എങ്ങനെയെങ്കിലും താഴെവീണതെന്നു വി വീണു കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ അവർക്കങ്ങനെ അത്രയ്ക്കു പോലും ഒരു ധൈര്യം ഇല്ലാണ്ടു പോയത് പൊ പോ അങ്ങനെവരുന്ന അവസ്ഥയിൽ അവർ ആശ്രയിക്കുന്നതെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഈ ലഹരി മരുന്നുകളെയാണ് ഇപ്പം എത്രപേരെയാണ് പോലീസുകാർ ഇങ്ങനെ ഈ റേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്ലാണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഇങ്ങനെ ക കഞ്ചാവ് ഉപയോഗിക്കുന്നതായിട്ടു കണ്ടിട്ടവരെ പിടിക്കുന്നത് മുടിയും താടിയും വളർത്തി അങ്ങനെ നടക്കുന്നതും സ്കൂളിൽ ഇവർക്കു വിപണനം നടത്തുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻറ്റ് വരെ അല്ലെങ്കിലിവർക്ക് എത്തിച്ചുകൊടുക്കാൻ വരെ ആൾക്കാരതുപോലെ നിൽക്കുകയാണ് അതിനു മാത്രം പൈസ ഇവർ അതിൽനിന്നും വാങ്ങുന്നതുമുണ്ട് അങ്ങനെ പലതരത്തിലാണിവരെല്ലാം ഈ ലഹരി അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ ശ്രമിക്കുന്നതും അതുവഴി ആളുകൾ ഇതിന് അടിമപ്പെട്ട് ഇപ്പോൾ മരണമടയുന്നതും